ഒരു ഗ്രാമപ്രദേശത്തിലുള്ള കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ് സാഹചര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം പ്രത്യേകിച്ച് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വാഴ കൃഷി നടത്തുകയാണെങ്കിൽ ഈ വാഴ കൃഷി നടത്തി വാഴ വെച്ച് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് വെള്ളം കയറിയാൽ ആ വാഴ എല്ലാം നശിച്ച് പോകുക ഏതൊരു കൃഷിയേയും പോലെ തന്നെയാണ് പ്രത്യേകിച്ച് വാഴയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അത് ഇത് തന്നെ സഹായത്തിനും അപ്പുറം സാഹചര്യമാണ് സിറ്റുവേഷൻ എന്താ കാലാവസ്ഥ മാറ്റം എന്ന് ഒരു രീതിയിൽ പറയാം

ഈ മറ്റൊരു ധനസഹായം ധനം സഹായം മറ്റൊരു കാര്യം ആണ് കർഷകർ എന്നും ഒരു മൂന്നാം കിട വിഭാഗങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അവർക്ക് ജീവിക്കാനുള്ള ചെറിയ രീതിയിലുള്ള വരുമാനം മാത്രം ജീ എടുത്ത് പോകുന്ന ഒരു വിധത്തിലാണ് കർഷകർ കൂടുതലായിട്ടും ഉണ്ടാകുക

നശിപ്പിച്ചു കൊണ്ട് ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചില ഇടങ്ങളിൽ എന്താണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുത്തൻ്റെ ജീവിതോപാധി തന്നെ ഇല്ലാതാക്കുന്ന കാര്യം അതൊരിക്കലും ഒരു വികസനമല്ല അത് മറിച്ച് ഒരു ഡിമോൺസ്ട്രേഷനാണ് മറ്റുള്ളവരെ തകർക്കലാണത് ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഏറ്റവും പറയാനുള്ളത് ഈ ഈ കർഷകർക്ക് എന്താണ് സഹായം എന്ന് പറഞ്ഞാൽ ചെറുകിട ചെറുകിട കർഷകർക്കുള്ള പരിശീലനം അതൊക്കെ എന്താണ് കർഷക ഈ ഒരു കർഷക ഫാമിലിയെ ബാധിക്കും കർഷക പരിശീലനം നിർബന്ധമാണ് അത് ചെറിയ ചെറിയ കാര്യത്തിനൊന്നും വേണ്ട മറ്റു കർഷക എന്താ വലിയ വലിയ കർഷക സമിതിക്ക് ഒക്കെ അത് നൽകണം എന്നാണ്